സെക്കൻഡ് പ്രോഡക്ട് എന്ന് പറയുന്നത് ഒരു ഹെഡ് ഫോൺ ആണ് ഹെഡ് ഫോൺ എന്ന് പറയുമ്പോൾ വയർലെസ്സ് ഹെഡ് ഫോൺ ആണ് അപ്പോൾ വയർലെസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ നമ്മുടെ കൈയിൽ എടുത്തു നടക്കെണ്ടതില്ല അപ്പം നമ്മുടെ ബാഗിൽ ആണെങ്കിൽ പോലും മറ്റുള്ളവരോട് സംസാരിക്കാം ഇത് അതിൻ്റെ വലിയൊരു പോസിറ്റീവാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും എവിടുന്നെങ്കിലും അതിൻ്റെ ചാർജ് തീർന്നു പോയാൽ ഇപ്പോൾ ചാർജ് ഒന്നും കുത്താൻ പറ്റില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല അതിൻ്റെ ചാർജ് തീർന്നാൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതാണ് അതിൻ്റെ നെഗറ്റീവ്